ഹലോ അലക്സ് ഏജൻസി അല്ലേ ഞാനൊരു പാസ്പോർട്ടിന്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് എന്തൊക്കെ പ്രൂഫ് ആണ് നമ്മള് കൊണ്ടുവരേണ്ടത് എസ് എൽ സിയുടെ പിന്നെ അല്ലാതെ എന്തൊക്കെ വേണം പിന്നെ ഫോട്ടോയൊക്കെ വേണ്ടേ നമ്മള് ഏത് അക്ഷയയാണ് അക്ഷയയില് ചെല്ലണമെന്നുണ്ടോ വേണ്ട പിന്നെ നമ്മള് ഇത് ഏജൻസി എങ്ങനെയാണ് നമ്മള്ക്കവിടെ പൈസയുടെ വല്ല പ്രോബ്ളവും ഉണ്ടോ ഏജന്സി നല്ല ഏജന്സി ആണല്ലോ അല്ലെ നമ്മള് കൊടുക്കുന്ന ഡോക്യുമെന്സ് ഒക്കെ നമുക്ക് പിന്നെ അതിന്റെ കുഴപ്പം ഒന്നും ഇല്ലല്ലോ ഡോക്യുമെന്സ് കൊടുത്താലും ഓക്കെ പിന്നാ പിന്നെ ഇതിനു നമ്മള് എത്രയാ ഇത് പൈസ അവര് ചോദിക്കുന്നത് നമ്മള് പൈസ കൊടുത്താല് അതില് പ്രശ്നം വല്ലതും ഉണ്ടോ അഥവാ ഒരു പാസ്പോര്ട്ടിനായിട്ട് നമ്മള് അപേക്ഷിക്കുമ്പോള് പോലിസ് വേരിഫിക്കേഷനൊക്കെ കാണുമോ എത്ര രൂപാ വേണ്ടി വരും ഇതിന് പാസ്പോര്ട്ട് നമ്മള് എടുക്കുന്നതിന് അതില് വേരിഫിക്കേഷന് വരുമ്പോഴത്തേനും നമ്മള് പോലീസിന് അവര്ക്ക് പൈസ കൊടുക്കേണ്ടി വരത്തില്ലേ അതേ നമ്മള്ക്ക് പാസ്പോര്ട്ട് ഇത് നമ്മള് അപ്ലൈ ചെയ്തു കഴിഞ്ഞ് എത്ര ദിവസത്തിനുള്ളില് നമുക്ക് ഇത് റെഡി ആകും താമസം ഉണ്ടോ അപ്പോള് നമ്മള്ക്ക് ക്ലാസ് ഞങ്ങള്ക്ക് കോഴ്സിനു പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ അവിടെ ചെന്നുകഴിയുമ്പോഴത്തേനും വേറെ വല്ലതും നമുക്ക് വേണ്ടി വരുമോ ഡോക്യൂമെന്സ് കൊടുക്കണമെന്ന് അവര് പറയുമോ അത് എന്തൊക്കെയാണെന്നുള്ളതു ഞങ്ങള്ക്കറിയില്ല ഒന്നു പറഞ്ഞുതരണം ഇന്റര്വ്യൂ ഉണ്ടാവുമോ അതേ ഇന്റര്വ്യൂ ചെയ്തിട്ടാണ് അവര് എടുക്കുന്നത് പിന്നെ പോലീസ് വീട്ടില് വരുമോ അതേ എന്നാലും എത്ര താമസം എടുക്കും നമ്മള്ക്ക് ഒരാഴ്ചയ്ക്കുള്ളില് റെഡിയാവുമോ ഞങ്ങളുടെ കൂടെ വേറെയും രണ്ടു കുട്ടികൾ ഉണ്ടായിരുന്നു അപ്പോള് അവർക്കും ആവശ്യമുണ്ട് അപ്പോള് ഏജൻസി എങ്ങനെയാണെന്ന് അവര്ക്ക് അറിയത്തില്ലല്ലോ നമ്മളിത് ആദ്യമായിട്ട് ചെയ്യുകയാണ് നമുക്ക് ആ അതിന്റേതായ ബുദ്ധിമുട്ടുണ്ട് പ്രയാസമുണ്ട് എങ്ങനെയാവുമെന്നുള്ളത് അക്ഷയായില് കൊടുക്കണമെന്നുണ്ടോ ഇത് അക്ഷയായിട്ട് നമ്മള് അവിടെ രജിസ്റ്റര് ചെയ്യണോ അക്ഷയായില് ചെന്ന് വേണ്ട അപ്പോള് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കില് ഞങ്ങള്ക്ക് പറഞ്ഞുതരണം